ഹലോ ആ പറഞ്ഞോ ചേച്ചി വീട്ടിൽ ഞാൻ ഹസ്ബൻഡ് അമ്മയുണ്ട് പിന്നെ രണ്ടു കുഞ്ഞുങ്ങളുമുണ്ട് പിള്ളേർ വാക്സിൻ എടുത്തതാണ് അമ്മക്ക് നിലവിൽ വാക്സിൻ അല്ലാതെ കോറോണേടെ വാക്സിനൊക്കെ എടുത്തത അമ്മ ഇവിടെയില്ലായിരുന്നു അമ്മ വെളിയിലാരുന്നു അന്നേരം അമ്മ അവിടെ വെച്ചന്നെ വാക്സിൻ എടുത്തു അമ്മക്കവിടെ വെച്ച് കൊറോണ വന്നതാണ് അപ്പോൾ അവിടെ വെച്ചമ്മ വാക്സിൻ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത് പിന്നെ ഇടക്ക് അറ്റ അറ്റാക്കിൻ്റെ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു പിന്നെ വേരിയേഷൻ ഇല്ലായ്രുന്നു ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പം നിലവിൽ അമ്മ മരുന്നു കഴിക്കുന്നുണ്ടിപ്പഴും അതങ്ങോട്ട് പൂർണമായിട്ട് മാറീട്ടില്ല ഇപ്പോൾ വേറെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെയൊന്നുല്ല ഈ ടാബ്ലറ്റ് കഴിക്കുന്ന കൊണ്ടായിരിക്കും അല്ലാതെ വേറെ വാക്സിനേഷനും കാര്യന്നും പിന്നെയൊന്നും ചെയ്തിട്ടില്ല ആ മോന് മോ മോൾക്ക് കൊടുത്തായിരുന്നു മോൾ ചേറ്റൂർ സ്കൂളിന്ന് അവിടുന്ന് ക്ലാസിനുതന്നെ കൊടുത്തായിരുന്നു മോൻ കൊടുത്തിട്ടില്ല അവനന്ന് പനിയായിരുന്നു അതുകൊണ്ടവന് കൊടുത്തില്ല അതുകഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയപതെന്നു അവര് മേടിച്ചുകൊണ്ടതന്നു ശർദിയും ഒഴിച്ചിലുമൊന്നും ഇല്ലെങ്കില് കൊടുത്തോളാൻ പറഞ്ഞു ഞാൻ പിന്നെ വീട്ടിൽ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അവനു മരുന്ന് കൊടുത്തത് ഞങ്ങൾ പുറ്റടി ഞങ്ങൾക്ക് ഹലോ മേഡം ആ ഈ വൈറ്റമിൻ കൊടുക്കുന്നതെ നമ്മളീ ഡേറ്റ് താമസിച്ചുപോയി കഴിഞ്ഞാലെന്തെങ്കിലും പ്രശ്നവൊണ്ടോ ഇത് എനിക്ക് ആണല്ലേ ഇപ്പം രണ്ടു മാസോം കൂടെ കയിഞ്ഞാരുന്നേ കൊച്ചിന് കൊടുത്തിട്ടേ അന്നേരം ഇനീപ്പം ആ ഓ ശരി അന്നേരം കൊടുത്തിട്ടിപ്പം ആറുമാസം ആറുമാസല്ല എട്ടുമാസത്തോളവായി അന്നേരം ആറുമാസം കൂടുമ്പഴല്ലേ വൈറ്റമിൻ കൊടുക്കുന്നത് സാധാരണയല്ലേ

ആ എടുത്തെടുത്തു ഇപ്പോൾ അവനു മൂന്നരവയസ്സ് മൂന്നര വയസായി അതിനു മുമ്പുള്ളയെല്ലാം ഇതും എടുത്തതാണ് ഇവൻ ഇടയ്ക്കെടക്കെ വിട്ടുവിട്ട് പനി വരുന്നുണ്ടേ അപ്പോൾ മിക്ക്യവാറുമെന്ന് പറഞ്ഞാൽ അപ്പം ഇവന് യൂറിൻ്റെ ഒരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു മൂത്രമൊഴിക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഒരു സർജറിയൊക്കെ കയിഞ്ഞാണ് അപ്പം അതുകയിഞ്ഞാണി വൈറ്റമിൻ കൊടുക്കാനായിട്ട് താമസം വന്നത് ഞങ്ങൾ പ്രൈവറ്റിലാ കാണിച്ചോണ്ടിരുന്നത് ഇവിടുന്ന് ചില ചിലയിടത് ചെല്ലുമ്പൊത്തേനും മരുന്ന് പിടിക്കുന്നില്ല മരുന്ന് പിടിക്കാതെ വരുമ്പം പിന്നെ അടുത്തടുത്ത് കൊണ്ടുപോവുന്നുണ്ട് കൊണ്ടുപോയി മരുന്ന് പിടിക്കുന്ന എവിടാണോ അത് നോക്കിയ കൊടുക്കുന്നത് അവന് സ്കിന്നിൻ്റെ പ്രശ്നമൊണ്ട് അതവന് ഉണ്ടായി ഒരു ആറു മാസം കഴിഞ്ഞപ്പോതൊട്ടവന് തുടങ്ങിതാണ് സ്കിന്നിൻ്റെ പ്രശ്നം അഹ് അത് നല്ല രീതീയിൽ നല്ല രീതീൽ പറഞ്ഞാൽ പയങ്കര പ്രശ്നയിട്ട് തന്നെ ഉണ്ടാരുന്നു അവൻ്റെ ദേഹത്തൊക്കെ എല്ലാം പൊട്ടി അഹ് വെള്ളം എടുക്കൊക്കെ ചെയ്തതാരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം അലോപ്പതി കൊണ്ടകാണിച്ചു ഒരുപാടടുത്തുപോയി അഡ്മിറ്റ് ആവുവേം വല്ലാതെ വല്ലാതെ ഇഷ്യു ആയതായിരുന്നെ പിന്നെ അതുകഴിഞ്ഞു പിന്നെ നമ്മൾ കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റിറ്റലിൽ കാണിച്ചപ്പോൾ അവരവിടെ നമ്മളോട് ആലുവ രാജഗിരിയിൽ കൊണ്ട്ക്കാണിക്കാൻ പറഞ്ഞു അവിടെ നമ്മൾ കൊണ്ടക്കാണിച്ചു കൊണ്ടക്കാണിച്ചപ്പോൾ അവിടന്നൊരു അവൻ്റെ ആ ദേഹത്തെ അലർജിയുടെ ആ പൊടിയൊക്കെ എടുത്ത് അവർ ടെസ്റ്റിനൊക്കെ അയച്ചു അപ്പം അതിൽ വേറെ വലിയ പ്രശ്നമില്ല ഈ ഡ്രൈ സ്കിൻ ആകുന്നെൻ്റെയാന്നു തന്നെയാണ് പറഞ്ഞത് ഡ്രൈ സ്കിൻന്നിൻ്റെ പ്രശ്നം തന്നെയാന്ന്റഞ്ഞ് പിന്നെ അവിടുന്ന് ഒരു ലോഷൻ ഉണ്ട് ആ ലോഷണിപ്പഴും തേപ്പിക്കുന്നൊണ്ട് അതുകൂടാതെ നമ്മൾ ആയുർവേദത്തിൽ കാണിച്ച് അതുകൊടുത്ത ശരിക്കും പറഞ്ഞാൽ അവനു കുറവായത് അലോപ്പതി കഴിച്ചിട്ട് അങ്ങനെ മാറുന്നിലാര്ന്നു അപ്പം അവിടുന്നൊരു എണ്ണയും അകത്തുകൊടുക്കാൻ കുറച്ച് മരുന്നും തന്ന് നമ്മളത് കറക്റ്റായിട്ട് കൊടുത്തതുകൊണ്ട് കറക്റ്റ് ഫോള്ളോ ചെയ്തത് കൊണ്ടാരിക്കും അവന് നല്ല മാറ്റമുണ്ടായിരുന്നു ഇപ്പൊഴും നമ്മളന്നേരം എണ്ണയൊക്കെ തേപ്പിച്ചാണ് കുളിപ്പിക്കേം യെടുക്കുമൊക്കെ ചെയ്യുന്നത് അമ്മക്ക് അറുപത്തിമൂന്ന് വയസ്സ് ബി പി ചില സമയങ്ങളിൽ ചെറുതായിട്ടൊന്ന് കൂടുന്നൊള്ളതേയുള്ളു അല്ലാത്തപ്പോ അല്ലാതെ ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുവില്ല ആ നടു ആ നടുവിന് വേദനയൊണ്ട് തലവേദനയൊണ്ട് നടുവന്നനേരം ഡിസ്കിന്ന് ചെറിയ കംപ്ലയിൻറ്റുള്ള ചെറുതല്ല ഇപ്പോൾ ഒത്തിരി നാളായിട്ട് മരുന്ന് കഴിക്കുന്നതാണ് പിന്നെ ഇടക്കിടക്ക് ഈ തലവേദനയൊണ്ട് ഹസ്ബൻന് നീലവിൽ പ്രശ്നന്നുല്ലാ ഹസ്ബൻഡിന് കൊളെസ്ട്രോള്ളിൻ്റെ ഒരു ഇതുണ്ട് കൊളെസ്ട്രോള് കഴിഞ്ഞയിടക്ക് നോക്കിയപ്പത്തെന് ശകലം കൂടുതലായിരുന്നു അപ്പം അതിന് നിലവിലിപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പോയി അപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ട് പിന്നെ ഷുഗറിന് ചെറിയ ഒരു വേരിയേഷൻ വേരിയേഷന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് കൂടുന്നില്ല കുറഞ്ഞാൽ നിക്ക്ന്നത് ചില സമയം എന്നുവെച്ചാൽ ഒരു നയൻറ്റി എബോവ് ആവുന്നില്ല നയൻറ്റിക്ക് താഴെയാണ് നിലവിൽ പുള്ളിക്ക് നിക്കുന്നത് ചിലസമയം നല്ല ക്ഷീണോം ബുദ്ധിമുട്ടുമൊക്കെ തോന്നുന്നുണ്ട് ആ ഞാൻ കൊറോണ വാക്സിനെല്ലാം എടുത്തതാണ് ഏഹ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാരുന്നു ആ എടുത്തെൻ്റെ അന്ന് ആ ഒരു ചെറിയ പ്രശ്നമുണ്ടാരുന്നു കൈക്ക് വേദനേം കാര്യങ്ങളും അത്രേയുള്ളു വേറെ അതുകയിഞ്ഞ് പിന്നൊന്നും ഓക്കേ ആയിരുന്നു നോർമലായിരുന്നു വീട്ടിൽ ഇല്ലാ നിലവിൽ നമുക്ക് കുഴപ്പമൊന്നുല്ല ആ ശരിയെന്നാൽ ആ ഓക്കേ